എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഓയിലാണ് ഹെയർ ഓയിലിൻ്റെ യൂസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ താരൻ പോകാനും മുടികൊഴിച്ചിൽ കുറയാനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് നമ്മളുടെ മുടി കുറച്ചെണ്ണമയമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് പലതരം ഹെയർ ഓയിലിപ്പം കടകളിലൊക്കെ ലഭ്യമാണ് ഇന്ദുലേഖ പിന്നെ ആ കുറേ ഓയിലുകളുണ്ട് പേരച്യൂട്ട് അങ്ങനത്തെ കുറേ ഓയിലുകളുണ്ട് ഇപ്പം പേരച്യൂട്ടുകളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എന്താപറയുക സാദാ കോക്കനട്ട് ഓയിലാണെന്നാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് നല്ല രീതിയിലുള്ള കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പം നമ്മുടെ മുടിയും എല്ലാം കൊഴിയാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇപ്പം കൊഴിച്ചിൽ ആദ്യമൊന്ന് മാറുമെങ്കിലും പിന്നീട് നമ്മളത് നിർത്തി കഴിയുമ്പോളൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാകും നമുക്ക് മുടി മുടികൊഴിച്ചിൽ നല്ലനണ്ണം വരും ചിലപ്പം താരൻ പോകില്ല പിന്നെ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ഹെയർ ഓയിൽസ് അത്ര നല്ലതല്ല യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് നല്ലരീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും തലക്ക് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുടികൊഴിച്ചിൽ അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും